ഹലോ ഞാൻ ഒരു ടി വി നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനാണ് ഞാൻ ഇപ്പോൾ വിളിക്കുന്നത് എൻ്റെ ഷിപ്പിങ് സ്റ്റാറ്റസ് എവിടെയായി എന്നാൽ എന്ന് എനിക്ക് അറിയണമായിരുന്നു എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ചെയ്തു തീർക്കാൻ പറ്റുകയുള്ളു എൻ്റെ ട്രാക്കിങ് നമ്പറ് പൂജ്യം അഞ്ച് ആറ് എട്ട് ഒമ്പത് ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് എന്നാണ് എത്രയും വേഗം വിവരങ്ങൾ എന്നെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു